ഹലോ ഗ്യാസ് ഏജൻസി അല്ലേ തിരുവനന്തപുരം അതെ ഞാൻ എൻ്റെ വീട് നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഗ്യാസ് എനിക്ക് ഒരു ഗ്യാസ് എക്സ്ട്രാ ഗ്യാസ് സിലിണ്ടറ് എനിക്ക് എക്സ്ട്രാ വേണമായിരുന്നു ഒരു എണ്ണം അധികം വേണമായിരുന്നു ഡെലിവറി എൻ്റെ താൽകാലിക ഡെലിവറി വിലാസം ഞാൻ ഇവിടെ പറയാം നമ്പർ ട്വൻ്റി ഫോർ മിഷേൽ ഹൗസ്സ് തിരുവനന്തപുരം കേരള അതെ അതെ അതെ എൻ്റെ ഐ ഡി ഞാൻ പറയാം അത് ഉപഭോക്തൃ ഐ ഡി ഒന്ന് അഞ്ച് മൂന്ന് രണ്ട് എട്ട് ഒമ്പത് നാല് മൂന്ന് ഏഴ് അഞ്ച് എത്രയും പെട്ടെന്ന് ഒരു ഗ്യാസ് സിലിണ്ടറ് ഈ ഒരു ഐഡിയിലേക്ക് ഒന്ന് അയച്ചു തരൂ ഒന്ന് എത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കൂട്ടോ അതെ അതെ ഇത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് കേട്ടോ ഇത് താൽക്കാലിക ഈ താൽക്കാല ക്രമീകരണം എൻ്റെ തന്നെയാണ് ഇത് ഞാൻ ഞാൻ നമുക്ക് താൽക്കാലികമായിരിക്കും